ഉണ്ടുണ്ട് ഏത് പൂ വേണ്ടത് നിങ്ങൾക്ക് ആണല്ലേ അത് റേറ്റ് ഓ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണോ അത് ഇപ്പോൾ കുറേ തരത്തിൻ്റെ ഇപ്പോൾ ഉണ്ട് ഇപ്പം ഏത് ഡേറ്റിന് നിങ്ങൾക്ക് വേണ്ടത് ഏത് ഡേറ്റിന്

ആ മാർച്ച് പത്തിന് അത് എങ്കിൽ അത് കർണ്ണാടകത്തിൽനിന്ന് അങ്ങുന്നിങ്ങുന്ന് എല്ലാം വരുന്ന കുറേ പൂ ഉണ്ട് ഇപ്പോൾ ജാസ്മിന് വേറെ റേറ്റ് ജമന്തിക വേറെ റേറ്റ് അത് പോലെ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ഉള്ളത് ഓ അത് മറ്റേ കല്ല്യാണ പൂമാലയോ ആ മാല ബൊക്കെയ്ക്ക് നാനൂറ് റുപ്യ മുതൽ ആയിരം റുപ്യ വരെ ഉള്ള ബൊക്കെ ഉണ്ട് മാലയ്ക്ക് അങ്ങനെ മാലയ്ക്ക് ഒരു എട്ട് നൂറിൽനിന്ന് സ്റ്റാർട്ടിംഗ് എട്ട് നൂറിൽനിന്ന് നാലായിരം റുപ്യ വരെ ഉള്ള മാല ഉണ്ട് അത് എടുക്കുമ്പോൾ രണ്ട് മാല ഒരു ഇതായിട്ടുതന്നെ എടുക്കണമല്ലോ ഇത് വേണമെങ്കിൽ ഞാൻ എത്തിച്ചുതരാം മാ അല്ല വീട്ടിലേക്ക് അല്ലേ കല്യാണം ഏത് ഓഡിറ്റോറിയത്തിൽനിന്ന് ആ ആടെത്തേക്ക് എത്തിച്ചുതരാം പ്രശ്നം ഇല്ല പിന്നെ വേറെ കല്യാണ പെണ്ണിന് ഇത് ആക്കാനുള്ള പൂ വേണ്ടേ അതും വെച്ചോ മുല്ലപ്പൂ അല്ലേ മുല്ല മുല്ലപ്പൂ അല്ലേ ആ മുല്ലപ്പൂവിനൊരു ഒരു മുഴത്തിന് റേറ്റ് ഒരു മുഴത്തിന് ഇപ്പോൾ ഇപ്പം നൂറ് റുപ്യ ഉണ്ട് മുഴത്തിന് അപ്പം മാർച്ച് ആവുമ്പോളേക്ക് ഒരു നൂറ്റൻപത് ഇരുനൂറിന്റുള്ളിൽ ഉണ്ടാവും

മുല്ലപ്പൂ ഇരുപത്തഞ്ച് മുഴം വേണമല്ലേ പിന്നെ രണ്ട് ബൊക്കെ രണ്ട് മാല പിന്നെ അത് ഡെക്കറേഷൻ ആക്കാൻ പൂ വേണ്ടേ ഓഡിറ്റോറിയത്തിന് പുറത്ത് എല്ലാം കൂടിയിട്ടൊരു എത്ര ഇതിന്റെ വേണ്ടി വരും എല്ലാം കൂട്ടിയിട്ട് ഇരുപതിനായിരത്തിന് മതിയാവുമോ ആ ഇരുപതിനായിരത്തിന് കിട്ടുന്ന മൊത്തം ആ മൊത്തം ബെസ്റ്റ് പൂ തരാം കേട്ടോ പിന്നെ ആ ആ അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യൂ